പുതിയ പുസ്തകത്തിലേക്ക് എത്തിച്ചേരുന്നതു കൂടുതലും ബോബി ജോസ് കട്ടിയാടച്ചന്റെ നോ കൃതിയായ ലേഖനങ്ങളൊക്കെയാണ് ഞാന് കൂടുതലും വായിക്കാറുള്ളത് അച്ഛന്റെ പുതിയത് പുസ്തകം ഇറങ്ങുമ്പോഴും ഞാൻ മെമ്പർഷിപ്പെത്തിയിട്ടുള്ളത് കാരണം അതെനിക്ക് സമയാസമയങ്ങളിൽ വീട്ടിലെത്തിച്ചേരാറുണ്ട് പിന്നെ ഞാൻ സാഹചര്യവശാലെത്തിച്ചേരുന്നത് സ്കൂളുകൾ ഇപ്പം ഞാന് വർക്ക് ചെയ്യുന്നിടത്ത് പുസ്തക കച്ചവടക്കാരൻ വരും അദ്ദേഹം ഇതുപോലെ തന്നെ പബ്ലിഷേഴ്സില് നിന്ന് എടുത്തു കൊണ്ടു വരുന്നതാണ് അതു കൊണ്ടുവന്നു കഴിയുമ്പോഴത്തേക്കും അതില് രസകരം അല്ലെങ്കിൽ എനിക്കിന്ററെസ്റ്റിങ്ങായിട്ട് തോന്നുന്നത് ആ മനുഷ്യനോടു വാങ്ങുകയും അതു സമയം കണ്ടെത്തി വായിക്കുകയുമാണ് കൂടുതൽ ചെയ്യുന്നത് എന്നാലും എനിക്കേറ്റവും കൂടുതൽ താത്പര്യം എന്നെ ഇന്സ്പയർ ചെയ്യുന്നത് അതായത് ഒരു വ്യക്തിയായി നല്ലൊരു വ്യക്തിയായിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് സാഹചര്യമൊരുക്കിത്തരുന്നത് വായിക്കാനും പിന്നെ കൂടുതൽ രസകരമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതും അല്ലാതെ മറ്റുള്ള ഒരു ആളുടെ ഭാവനയെ എൻറ്റേക്കടിച്ചേല്പ്പിക്കുന്നതിനോട് എനിക്ക് താത്പര്യമില്ല പിന്നെ പക്ഷെ നമ്മൾ ഒരു നല്ല വ്യക്തിയിൽ നിന്ന് പാടങ്ങളുൾക്കൊണ്ടു കൊണ്ട് നല്ലതായി ജീവിക്കുവാനായിട്ട് പറയുന്ന അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ വായിക്കുന്നതിനോടാണെനിക്ക് താത്പര്യം കൂടുതല് ഞാനും ഈ പുസ്തകക്കച്ചവടക്കാരന് വരുമ്പോഴും അദ്ദേഹത്തിനോടും പിന്നെ അല്ലാതെ ബോബി അച്ചന്റെ പുസ്തകങ്ങളുമാണ് ഞാന് കൂടുതൽ വായിക്കാറുള്ളത്